ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിത്ര രചനാ മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടൊണ്ട് അപ്പം അവർ ഒരു ടോപ്പിക് ആദ്യം തരും ആ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ ചിത്രം വരക്കണം ചില സമയങ്ങളിൽ നമുക്കൊന്ന് വരക്കാൻ ചിലപ്പോൾ കിട്ടണംന്നില്ല അപ്പം നമ്മുടെ ഭാവനേൽ ഉണർന്ന് വരുന്ന എന്തെങ്കിലുമൊക്കെയായിരിക്കും വരക്കേണ്ടി വരുക പിന്നെ എങ്ങനേന്ന് വച്ച് കഴിഞ്ഞാൽ ആദ്യം പണ്ടൊക്കെ നമ്മൾ വരച്ചോണ്ടിരുന്നത് രണ്ട് മലകൾ അതിൻ്റെ നടുക്ക് ഒരു സൂര്യൻ ഉദിച്ച് വരുന്നു പിന്നെ അതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ ഒരു പുഴയും നദീം ഒഴുകുന്നു അപ്പം നദീൻ്റെ അപ്പുറത്തേക്കൊരു പാലം ഒരു തോണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ആദ്യം നമ്മൾ ഒരഞ്ചാം ക്ലാസ്സ് നാലാം ക്ലാസ്സ് ആ സമയത്തൊക്കെ ഇവർ പറയുന്നൊരു ചിത്രംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴോക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മാറീട്ടുണ്ടാകും കാരണം ചില അതപ്പോഴത്തെക്കാലത്ത് എളുപ്പം ഏറ്റോം എളുപ്പമുള്ളൊരു ചിത്ത ചിത്രം വരക്കുകാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആ കാ ഇത് കാഴ്ചകളൊക്കെയാണ് വരക്കേണ്ടത് പിന്നെ ഓരോ കാര്യം അതായത് ഓരോ പടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരക്കേണ്ടി വരും ചിത്ര രചന നടത്തീട്ടണ്ട് പിന്നെ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ അങ്ങനെ ഓരോ വർഷം ഓരോ വർഷം നല്ല രീതിയിലുള്ള ചിത്ര രചന മത്സരങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പം നല്ല രിതിയിൽ ചിത്രം വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേറ്റ് ലെവല് വരെ എത്തി എത്തി എത്തിപ്പെടാനും എല്ലാ കാര്യങ്ങൾക്കും അവിടുന്നാണ് നമുക്ക് ഒരു പ്രചോദനായിട്ട് മാറുന്നത്